ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് നമ്മുടെ സമ്പത്തിക വ്യവസ്ഥയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോഴിക്കോട് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലിയൊരു സിറ്റിയാണ് അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവും കാരണമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ജില്ലയില് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള വ്യവസായങ്ങളും കാര്യങ്ങളും ഒക്കെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് അപ്പോൾ നമ്മള് നല്ല രീതിയിലുള്ള ബിസിനസ്സൊക്കെ തിരഞ്ഞെടുത്തിട്ട് വേണം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത് നമ്മള് ഇപ്പോൾ എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മള് ഒരു ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ്സ് തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മള് കൂടുതലായിട്ടും ഈ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ നാപ്പത് ലക്ഷം രൂപേന്റെ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മളതിനനുസരിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള വെല്ലുവിളികളും നേരി നേരിടേണ്ടി വരും ഇതിപ്പോൾ ഇപ്പോൾ ഒരു എന്തേലും ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാവില്ല നഷ്ടം മാത്രമേ ഉണ്ടാവുകയുളളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ മെറ്റീരിയൽസ് അതായത് നമ്മുടെ തുണിത്തരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മള് സൂക്ഷിച്ചും കണ്ടും ഒക്കെ തുടങ്ങണം നമ്മള് നല്ല ഏരിയ നോക്കിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങളപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പല രീതിയിലുള്ള തൊഴിൽ മേഖലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയില് നമ്മള് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണേൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ടയറിൻ്റെ കമ്പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പോൾ നല്ലോണം വിറ്റഴിക്കുന്നത് എന്ന് പറഞ്ഞാല് നല്ലൊരു നല്ലൊരു എമൗണ്ടിന് വിറ്റഴിക്കുന്നത് ടയറും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ജെ കെ ടയറ് പിന്നെ അങ്ങനത്തെ ടയറുകളൊക്കെ നമ്മുടെ സിയറ്റ് അങ്ങനത്തെ ടയറുകളൊക്കെ കമ്പനി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിരിക്കും